മത്സ്യബന്ധനം എന്തുകൊണ്ടും വളരെ മനസ്സിന് ഉന്മാദം ഉണ്ടാക്കുന്ന ഒന്നാണ് കാര്യം മൽസ്യങ്ങൾ കുഞ്ഞുങ്ങൾ നമ്മൾ ഇടുന്ന കാലം മുതൽ അതിനെ ഓരോ ദിവസവും അതിന് തീറ്റി കൊടുക്കുന്നതും അതിനുവേണ്ട മറ്റു സംരക്ഷണങ്ങൾ മറ്റ് ജീവികൾ അതിനെ ആക്രമിക്കാതിരിക്കാൻ അതിൻ്റെ വലകെട്ടുക അതിന് ദിവസവും അതിന് അടുത്ത് ചെല്ലുക അതിന് തീറ്റ കൊടുക്കുമ്പോൾ അതുങ്ങൾ അത് നമ്മുടെ അടുത്തേക്ക് വരുക അതുമായിട്ട് പങ്കുക അത് നമ്മുടെ മനസികമായിട്ട് ഒത്തിരി ഉന്മേഷം കിട്ടുന്നതാണ് മറ്റൊരു പ്രശ്നം ഇതിലേക്ക് പോയാലും നമുക്ക് ഇത്ര ഒരു ഇത് കിട്ടത്തില്ല നമ്മൾ തീറ്റികൊടുക്കുന്ന സാധനം അത് കൃത്യസമയങ്ങളിൽ നമ്മുടെ അടുത്ത് വരുകയും ഐകിയ അതുപോലെതന്നെ അത് വിളവെടുപ്പ് സമയം ആവുമ്പോൾ നമ്മളതിനെ പിടിച്ച് വിൽപ്പന നടത്തുന്നു വേറെ ആരും നമ്മളെ അതിനകത്ത് ചോദിക്കാൻ വരുന്നില്ല നമ്മൾക്ക് ഇഷ്ടം ഉള്ളപ്പം അതുപോലെത്തന്നെ നമുക്കതിപ്പം ഏത് സമയത്ത് വേണമെങ്കിലും ഒരുവിധം പ്രായമാകുമ്പോൾ നമുക്കതിനെ വിൽക്കാൻ സാധിക്കും മത്സ്യങ്ങളെ നമ്മൾക്ക് ഇപ്പോൾ ചെറുപ്പം വലുപ്പവും അനുസരിച്ച് പല പല കൂടുകളിൽ ആക്കാം അത് നമുക്ക് നല്ല വില കിട്ടുന്ന സമയത്ത് കൊടുക്കാം അപ്പോൾ നമുക്കെന്തിനും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അതിങ്ങളെ നോക്കുകയും പരിപാലിക്കാനും കഴിയുന്ന ഒന്നാണ് മൽസ്യബന്ധനം മൽസ്യം മത്സ്യത്തെ നമ്മൾ ഇടുന്നതുമുതൽ അത് കൊടുക്കുന്നത് വരെ നമ്മൾ ഏതാണ്ട് അതിനോട് ചേർന്ന് തന്നെ നിന്നാണ് നമ്മൾ ആ തൊഴിലുമായി പോകുന്നത് വേറെ ഒരു തൊഴിലിനും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മൽസ്യങ്ങൾക്കെന്തെങ്കിലും അസുഖങ്ങൾ വന്നു അല്ലെങ്കിൽ ആ വെള്ളം ചീത്തയായി ഇത് മാറി അത് ചെയ്യുന്നു നമുക്ക് ഇപ്പോൾത്തന്നെ നമ്മുടെ ഇടുന്ന മൽസ്യങ്ങളിൽ വലുപ്പം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അതിനെ വിൽപ്പന നടത്താനൊക്കെ ചെയ്യും മറ്റു ഇപ്പം കൃഷിയാണെങ്കിൽ പോലും അതിനൊരു പ്രായം ഉണ്ട് കപ്പ അല്ലെങ്കിൽ ഏത് ഒരു സാധനം ആണെങ്കിലും അതിനൊരു ഇത്ര മാസം എന്ന് പറയുമ്പോഴേ ആ വിളവെടുപ്പ് കൃത്യമാകത്തുളളൂ മൽസ്യത്തിന് അതല്ല നമ്മൾ തീറ്റ കൊടുക്കുന്നതനുസരിച്ച് മൽസ്യം വളരുകയാണെങ്കിൽ വലുപ്പം കാണുകയാണെങ്കിൽ നമുക്കതിനെ പാകം ആകുന്നതിനെ നമുക്ക് വിൽക്കുകയോ മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടുതന്നെ മറ്റ് തൊഴിലിനെയൊക്കെ അപേക്ഷിച്ച് മൽസ്യബന്ധനം നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല പിന്നെ കുട്ടനാട് ആലപ്പുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ വെള്ളപ്പൊക്കം ഒരു കാരണമാണ് വെള്ളപ്പൊക്കം വന്നാൽ കൃഷി ഇതിനകത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മൽസ്യക്കുഞ്ഞുങ്ങളും മത്സ്യവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതൊഴിച്ചാൽ മൽസ്യബന്ധനം അങ്ങനെ വളരെ നഷ്ടങ്ങൾ വരുന്നത് കാര്യം അല്ല നമ്മൾ എപ്പോഴും അതിൻ്റെ പുറകെ നമ്മൾ ആ നമ്മുടെ കാര്യങ്ങൾ എല്ലാം നടക്കുകയും ചെയ്യും ഇതിൻ്റെ കാര്യങ്ങളും ചെയ്യും നമ്മൾക്ക് അതിന് കൃത്യമായി തീറ്റികൊടുക്കുന്ന സമയങ്ങളിൽ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യങ്ങളില്ല എന്നാൽ നമ്മൾക്ക് ജീവിതത്തിൽ നല്ല ഒരു വരുമാനമാർഗ്ഗം കൂടിയാണ്